റോസ പോലെയുള്ള ചെടികളാണ് വീട്ടിൽ വളർത്തുന്നത് അതേപോലെതന്നെ മേ ന്നാ ചെത്തി ചെമ്പരത്തി അതെ പോലേ മറ്റേ മ് മഞ്ഞ കളറിലുള്ള ഒരു പുതിയ ടൈപ്പ് പു ഒരു ഉണ്ട് അതെപോലെതന്നെ വള്ളിച്ചെടികൾ ഇടുന്ന ചെടിയെന്നു പറയുന്നത് മുല്ല പോലെയുള്ള വ വള്ളിച്ചെടികളുമുണ്ട് അവേ ഇപ്പം കുറ്റിമുല്ലയൊക്കെ ഉണ്ട് എങ്കിൽത്തന്നെയാണെങ്കിലും വ മേന മുല്ല പടർന്നു കിടക്കുന്നതു കാണാൻ നല്ല രസമാണ് അതേപോലെ ഈ റോസ് പൂക്കളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളതു കൊണ്ടാണ് ഇങ്ങനെയുള്ള പൂക്കളൊക്കെ വളർത്തുന്നത് അവയേ നല്ല പൂന്തോട്ടങ്ങൾ കാണുന്നതിന് ഉള്ള രസമുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിലേക്കുള്ള ചെടികളൊക്കെ എല്ലാവരും വീടുകളിൽ വളർത്താറുള്ളത് എന്നു പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനും ഞങ്ങളുടെ വീട്ടിലും ഈ പറയുന്ന ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയായിത്തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് നല്ല രസമാണ് ഇതെല്ലാം കിളിർത്ത് ചെടി മ പൂക്കളായി നിൽക്കുന്നത് കാണുന്നത് നല്ല രസമാണ് കുട്ടികൾക്കും ഒക്കെ നല്ല ഹരമായി തോന്നുന്നത് കൊണ്ടാണ് ഇതൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തു മുൻപോട്ടു കൊണ്ടുപോകുന്നത്